അതേയതേ എലെക്ട്രിഷൻസ്

ആ ഈ ആ ഈ പാറത്തോട് പാറത്തോടെവിടെയായിട്ടു വരും സാറേ കണ്ണാടിപ്പാറയില് പോകുന്ന വഴിക്കാണല്ലേ വീട്ടുനമ്പറൊന്നു പറയാമോ സാർ നൂറ്റി മുപ്പതല്ലേ പാറത്തോട് പത്താം വാർഡല്ലേ പതിനൊന്നാം വാർഡല്ലേ ഇതിന് മുന് ഇത്തരം കംപ്ലൈൻ്റ് വന്നിട്ടുണ്ടായിരുന്നോ സാറേ വന്നിട്ടില്ല ആദ്യമായിട്ടാണ് ഈ നമ്മള് നമ്മള് വാങ്ങിച്ച വീടാണോ സാധാരണ വച്ച വീടാണോ ഇത് എന്നുവച്ചാല് അപ്പോള് എത്ര വർഷം പഴക്കമുണ്ട് സാറേ ഇതിൻ്റെ പ്ലംബിങ്ങും ഇലെക്ട്രിക്ക് പന്ത്രണ്ട് വർഷമായതാണല്ലേ ഇത് ഇതിപ്പോള് ഇന്ന് ഇന്നു രാവിലെ തൊട്ടാണോ ഇതിങ്ങനെ സംഭവം ഇതു കാണാൻ ആണല്ലേ നമ്മൾ ബോർവെൽ വെള്ളമാണോ അതോ സാധാ കിണറിലെ വെള്ളമാണോ ഉപയോഗിക്കുന്നത് ആണല്ലേ നിലവില് വേറെയേതെങ്കിലും ടെക്നീഷ്യൻമാരെ കാണിച്ചതാണോ അതോ കാണിച്ചിട്ടില്ലല്ലേ ഈ നിലവിലിപ്പോള് എന്ത് ശരിക്കു സംഭവിച്ചതെന്തുവാണ് ഈ വെള്ളം വരുന്നില്ലെന്നുള്ള വെള്ളമടിക്കാൻ പറ്റില്ല കറണ്ട് ഡ്രിപ്പായി പോവുകയാണല്ലേ എവിടെയെങ്കിലും ഷോട്ടായായിരുന്നോ എന്തെങ്കിലും ഉപകരണങ്ങള് വീട്ടുപകരണങ്ങള് ഉപയോഗിച്ചപ്പോഴോ അല്ലെങ്കില് എർത്തായിപ്പോവുകയോ അല്ലേ മറ്റേ വീട്ടില് മറ്റേ ഈ ഇടി മിന്നല് ഈ ദിവസങ്ങളീ പ്രദേശത്തു വല്ല മഴയോ ഇടിമിന്നലോ അങ്ങനെ വല്ലതും ഉണ്ട് അനുഭവപ്പെട്ട്

അറിയില്ലല്ലേ ഈ മറ്റേ ഡ്രിപ്പ് ലെ ആ മെഷീൻ അത് ആ ഡ്രിപ്പായിപ്പോയിരിക്കുകയാണോ അതോ ഫ്യൂസ് ഡ്രിപ്പായി പോവുകയാണോ ആ അത് ഓണാക്കുമ്പോള് മൊത്തം മൊത്തത്തില് ഒരു ഭാഗത്ത് ഭാഗികമായിട്ടാണോ അതോ മൊത്തത്തിലാണോ പോകുന്നത് വരുന്ന പോലെയല്ലേ ആ ഇതിനെല്ലാം പ്രത്യേകമായിട്ടുള്ള ഫ്യൂസുകളാണോ ഓരോ റൂമിനും സപ്പറേറ്റ് ഓരോ സെക്ഷൻ തിരിച്ചാണോ വച്ചിരിക്കുന്നത് ആണല്ലേ ആണല്ലേ റിപ്പോർട്ട് കെ എസ് ഇ ബോർഡിലറിയിച്ചിരുന്നോ ഇതുമായിട്ടു ബന്ധപ്പെട്ടുതന്നെ

ഇല്ലല്ലേ അറിയിച്ചിട്ടില്ല ആ ആ അല്ല എന്നുവച്ചാല് ഈ ഇനിയിപ്പോള് ഇടിമിന്നലോ അങ്ങനെ എന്തേലും സംഭവമുണ്ടായതിൻ്റെ വെളിച്ചത്തില് സംഭവിച്ചതാണോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ് സാറെ അ ഓക്കേ സാറേ എന്നിരുന്നാലും ഞാനൊന്ന് ചെക്കെയ്തിട്ടേ ഞാനൊന്നു സമയം നോക്കിയിട്ട് ഞാന് ഒരു പത്തു മിനിറ്റിനുള്ളില് തിരിച്ചുവിളിക്കാം ഒന്ന് ഒന്ന് ചെക്കെയ്യട്ടെ ഈ ദിവസങ്ങളില് വേറെ എവിടേലും അപ്പോയിന്മെൻ്റ് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നു ചെക്കെയ്തിട്ടേ സാറെ തിരിച്ചു വിളിക്കാം വേറെന്തേലും എടുത്തുപറയത്തക്കതായി ഉണ്ടോ നിങ്ങള്ക്ക് ഇല്ലാല്ലേ ആ ഓക്കെ ആയിക്കോട്ടെ സാറെ ആയിക്കോട്ടെ സാറിൻ്റെ പേര് പേര് പറഞ്ഞില്ലായിരുന്നു സാർ ജിയോ ഓക്കെ ആയിക്കോട്ടെ സാറെ കാണാം ഓക്കെ ആ വിളിച്ചോളാമേ ഓക്കെ സാറെ ഓക്കെ ഇപ്പോള് വിളിച്ചതിനു നന്ദിയുണ്ട്